ഹലോ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഓഫീസല്ലേ എനിക്ക് പെട്ടെന്ന് ഒരു ഏർ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു പെട്ടെന്ന് വന്ന് എമർജൻസിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെന്തൊക്കെ ചെയ്യേണ്ടത് ഒക്കെയൊന്നു പറയേണ്ടത് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ എന്തൊക്കെയാണതിനു ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്നു പറയൂ പെട്ടെന്ന് സീറ്റ് കിട്ടാൻ ചാൻസുണ്ടോ എന്താണ് അതിൻ്റെ അവസ്ഥകൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് അർജൻറ്റായിട്ടുള്ളത് എന്നൊക്കെയുള്ളതൊന്നു പറയണേ അതായത് പാസ്പോർട്ടിൻ്റെ ആവശ്യം ഇല്ലല്ലോ പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടത് ആധാറോ അങ്ങനെയൊക്കെയുള്ളത് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത് പെട്ടെന്നു വന്ന സാഹചര്യമാണ് പിന്നെ നിങ്ങൾ കഴിവണ് കഴിയുന്നതും എന്നെ ഹെല്പ് ചെയ്യണം അങ്ങനെ അത്രക്കും നിർബന്ധിതാവസ്ഥയിലാണ് ഞാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഹെല്പ് ചെയ്യുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്ന് അറിയണം ഓക്കെ താങ്ക് യൂ